ഇപ്പോഴത്തെ പരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതെന്നു വെച്ചാൽ അതിന് ശക്തിയുമുള്ള ഈയൊരു പരസ്യം കുറവാണ് ഇപ്പോൾ പണ്ട് കാലങ്ങളിലാണ് ഏറ്റവും നന്നായിട്ടുള്ള പണ്ടത്തെ കാഞ്ചിപുരം സാരികൾ കല്യാൺ സിൽക്ക്സ് അതിൻ്റെയൊക്കെ പരസ്യങ്ങൾ നമുക്ക് എത്ര നല്ല എത്ര നല്ലോണമാണെന്ന് അറിയുമോ അതിൻ്റെ ഇതുതന്നെ ഇപ്പോഴത്തെ പരസ്യങ്ങളിലൊക്കെ നമ്മൾക്ക് സ്വാധീനിക്കാനുള്ളൊരു ഇതില്ല പിന്നെയുള്ളത് സാരികളുടെ പരസ്യങ്ങളാണ് കല്യാണ് സിൽക്ക്സ് ഇപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് ബാക്കിയുള്ള പരസ്യങ്ങളൊക്കെ എന്താണ് വലിയ സുഖമൊന്നുമില്ല നമ്മളെ സ്വാധീനിക്കാനുള്ളൊരു പവറില്ലേ ഇപ്പോഴത്തെ ഒരു പരസ്യങ്ങൾക്കും പണ്ടത്തെ എന്താണെന്നു വെച്ചാൽ പരസ്യങ്ങൾ കണ്ടാൽത്തന്നെ അതിനോടൊരു ലൈക്ക് നമുക്ക് തോന്നിയിരുന്നു ആ ലൈക്ക് നമുക്ക് ഇപ്പോൾ ഒന്നിനോടും തോന്നുന്നില്ല അങ്ങനെയൊരു പ്രശ്നം നമ്മൾക്കുണ്ട് പിന്നെയെന്താ കൂടുതൽ എത്താൻ കഴിയുന്ന പരസ്യങ്ങൾ ഏതു പരസ്യങ്ങൾ ഏതൊക്കെ പരസ്യങ്ങളിലൂടെയാണെന്നു ചോദിച്ചാൽ മെയിനായിട്ട് ഡ്രസ്സിൻ്റെ അതൊക്കെ പരസ്യങ്ങളിലൂടെയാണ് അപ്പോൾ നമ്മൾ ആ ഇതിലേക്കെത്തും മെയിനായിട്ട് അതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് നമ്മളങ്ങോട്ടെത്തും അതാണ് ഡ്രസ്സുകളുടെ ഒരിത് പുതിയ പുതിയ കളക്ഷൻസൊക്കെ കാണിച്ച് പിന്നെയുള്ളത് ഓരോ തരത്തിലുള്ള ഡ്രസ്സ് മിഠായികൾ അങ്ങനത്തെ അതിൻ്റെയൊക്കെയാണ് പരസ്യങ്ങളുള്ളത്